ജോലി സ്ഥലത്തൊക്കെ ഞാൻ അഭിമുഖീകരിച്ച ഒരു വെല്ലുവിളി എന്തെന്നാൽ എനിക്കൊരു ഗ്രൂപ്പിൽ പെടേണ്ടി വന്നു ഒരു പ്രോജക്ട് ചെയ്യാനായി അതിൻ്റെ ലീഡർ ആയി എൻ്റെ മെമ്പേഴ്സ് എന്ന് പറയുമ്പോൾ എനിക്ക് യാതൊരുവിധ പരിചയമില്ലാത്ത മെമ്പേഴ്സ് ആയിരുന്നു അതുകൊണ്ട് അവരുമായി ബന്ധപ്പെടാൻ അവരുമായി സംസാരം നല്ല രീതിയിൽ എത്താൻ വളരെയധികം സമയം ഉണ്ടായി എന്നാലും വളരെയധികം ബുദ്ധിമുട്ടൊക്കെ ഉണ്ടെങ്കിലും എനിക്ക് ആഗ്രഹിച്ചത് പോലെ എൻ്റെ പ്രൊജക്റ്റ് തീർക്കാൻ എനിക്ക് സാ പറ്റി ആദ്യമൊക്കെ ബുദ്ധിമുട്ടുകൾ ഉണ്ടെങ്കിലും പിന്നീട് അത് പൂർത്തീകരിക്കാൻ സാധിച്ചു